കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളിൽ നിന്നും ഫുഡ് ഓർഡർ ചെയ്തിട്ട് വളരെ ചൂട് അത്യാവശ്യം നിൽക്കും പക്ഷേ നമുക്ക് ആ ഒരു നല്ല ചൂടോടെ ഭക്ഷണം കഴിക്കാൻ സാധിക്കാതെ വന്നു അപ്പം നിങ്ങൾ ഇനിയും ആ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ മറ്റുള്ള കസ്റ്റമറിനും ഫുഡ് ഓർഡർ ചെയ്യുമ്പം നല്ല രീതിയിൽ കുറച്ചുകൂടെ നല്ല പാക്കേജിങ്ങ് അതായത് ചൂട് നമുക്ക് കുറേ സമയം കൂടെ നീണ്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലുള്ള ഒരു അവസ്ഥയിൽ ആണെങ്കിൽ നമ്മൾ ഈ ഫുഡ് ഓർഡർ ചെയ്യുന്നെങ്കിലും അതാ അത് നമുക്ക് അവൈലബിൾ ആകാൻ അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഫുഡ് നമുക്ക് നല്ല ചൂടോടെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ കൂടുതലും നിങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ പാക്കേജ് ചെയ്യണമെന്ന് ഒരു അഭ്യർത്ഥന ഉണ്ട്